ആ ഹലോ രഞ്ജിനി എന്തോ ഉണ്ട് വിശേഷം ആ എന്നാ ഒണ്ട് ഒത്തിരി ആയല്ലോ സ്വരമൊക്കെ കേട്ടിട്ട് ആ ആ ഇവിടെയൊന്നും വിശേഷമൊന്നും ഇല്ലെടി സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിളിച്ചത് ഞാൻ എനിക്ക് എൻ്റെ കസിന് അങ്ങനെ ഗൾഫിലേക്ക് ഒരു ജോലിക്ക് വരുന്നോ എന്ന് ചോദിച്ച് ഇങ്ങനെ വിളിച്ച ഒരു ഓഫറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പാസ്പോർട്ട് പോലും എടുത്തിട്ടില്ലായിരുന്നു അപ്പോ നീ പാസ്പോർട്ട് ഒരിക്കൽ എടുത്തിട്ടുണ്ടല്ലോ ഞാൻ അപ്പം ഇങ്ങനെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തത് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അവർ ഇമെയില് അയച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ബാക്കി എന്നാ ചെയ്യേണ്ടേ എന്ന് ആകപ്പാടെ ഒരു കൺഫ്യൂഷ്യൻ അപ്പോൾ നിന്നെ ഒന്ന് വിളിച്ചു ചോദിക്കാലോ കാരണം വീട്ടിൽ ഇവിടെ ആരും പാസ്സ്പോർട്ടിൻ്റെ കാര്യമൊന്നും ചെയ്തിട്ടു പോലുമില്ല അപ്പം നിന്നോട് ചോദിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാമല്ലോ എന്നും കരുതിയാൽ ഇപ്പോൾ ഇമെയില് ലഭിച്ചു കഴിയുമ്പം നമ്മൾ എന്നാൽ ചെയ്യുന്നത് അത് ഫോണൊന്ന് വിളിച്ചു ചോദിച്ചാൽ അവർ പറയുമോ എന്നാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെല്ലേണ്ടത് എപ്പോഴാന്നൊക്കെ അത് ടൈം എപ്പോഴാന്നൊക്കെ എവിടെയാടി ഈ പാസ്സ്പോർട്ട് ഓഫിസ് കോട്ടയത്താണ് അല്ലേ ഓക്കെ അപ്പോൾ അവിടെ ചെല്ലണോ അതേ സമയം വല്ലതും കൊടുക്കുമോ നമ്മൾ ഈമെയിൽ കൊടുത്തിട്ടുണ്ടോ ഞാൻ വായിച്ചൊന്നും നോക്കിയില്ല ജസ്റ്റ് മെയിൽ ഇങ്ങനെ കണ്ടപ്പം ഞാൻ ആകപ്പാടെ ഒരു പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോളാണ് ഞാൻ ലെയിറ്റ് ആയിട്ടാണോ ഈമെയിൽ ചെക്ക് ചെയ്തെന്ന് അറിയാൻ വേണ്ടി നിന്നെ വിളിച്ചു എന്നെ ഉള്ളത് ഓക്കേ ആ അപ്പം ആണോ ഓഹോ ശരി ശരി ഫോട്ടോ ഒക്കെ എങ്ങനെയാണ് അപ്പം അവിടെ എന്നെടുക്കുവാണ് അല്ലേ ആഹാ അവർ പറയുന്ന സമയത്ത് നമ്മൾ അവിടെ ചെല്ലണം അല്ലേ ഞാൻ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ ഒന്ന് അല്ല ഇനി വേറെ വല്ല നീ എടുത്തിട്ട് ഒത്തിരി വർഷമായല്ലേ ഇനി അതിൻ്റെ മാറ്റം ഉണ്ട് ഈ ഇടയും പാസ്സ്പോർട്ടിൻ്റെ കാര്യം പുതുക്കുന്ന കാര്യം എല്ലാം അങ്ങനെ എന്തോ മാറ്റങ്ങൾ വരുത്തിയെന്നും പറഞ്ഞ് ഇങ്ങനെ ഈ ഇവിടെ പത്രത്തിലോ എവിടെയോ ഞാൻ വായിച്ചത് ഫേസ്ബുക്കിലോ അങ്ങനെ എങ്ങാണ്ട് വായിച്ചു ആണോ അതിന് ആ അങ്ങനെ മാറ്റമുണ്ട് ഞാൻ ഒന്ന് വിളിച്ച് ചോദിക്കാം അല്ലേ അതാണൊ നല്ലത് ആണോ ഓ ശരി ആ ഇമെയിലിൽ ഉണ്ടെന്ന് തോന്നുന്നു ആ നമ്പറുണ്ടെന്ന് തോന്നുന്നു എന്നാൽ വിളിച്ചു ചോദിക്കാം അല്ലെ എങ്ങനെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ അല്ലേ ആ പാസ്പോർട്ട് എടുത്തിട്ടല്ലേ ഇനി അയച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ ജോലിയുടെ കാര്യമൊക്കെയാണ് പാസ്സ്പോർട്ട് കഴിഞ്ഞിട്ട് അല്ലേ ബാക്കി അവിടെ ചെന്നിട്ട് അല്ലേ ഇനി ബാക്കി അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്യാതിരുന്നാൽ എങ്ങനെയാണ് ഓഫിസിലേക്ക് വിളിക്കണം അല്ലേ വിളിച്ചു ചോദിക്കാം അല്ലേ ആ ഓ ശരി ശരി ആ ആഹാ എന്നാൽ എടുക്കുവായിരുന്നു ആണോ ഓ ശരി ശരി ആ വേറെ വിശേഷം ഒന്നുമില്ല എടീ ഇവിടെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്നാാൽ ഞാൻ ഇടയ്ക്ക് വിളിക്കാം കേട്ടോ നിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ ഒന്ന് ആദ്യം അങ്ങോട്ടേക്ക് ഒന്ന് ഓഫീസിലേക്ക് ഒന്ന് ഫോൺ വിളിക്കട്ടെ പത്ത് മണിക്ക് ശേഷം വിളിച്ചാൽ മതി അല്ലേ മൂന്ന് മണി വരെ മൂന്നര വരെ എങ്ങാണ്ടെ ഉള്ളതെന്ന് തോന്നുന്നത് അല്ലെ ഓഫീസ് ഓക്കേ ആഹാ ആഹാ എന്നാൽ ഞാൻ വിളിച്ചോളാം എടി ശരി ഓക്കേ